ഞാനെ ഹലോ ആ ആധാർ കാർഡ് എടുക്കാന് എന്തൊക്കെയാണ് വേണ്ടത് ഇങ്ങനെ അറിയാൻ അതെയതെ ഞാനെ ഇവിടെ നാട്ടില് ഇല്ലാഞ്ഞ ആളായിരുന്നു ഇല്ലില്ലില്ല ഓക്കെ ശരി അതെ അതൊന്ന് ലിങ്ക് ചെയ്യാനും കൂടെയാണ് നമ്മുടെ അപ്പോൾ എന്നതൊക്കെ അതിനു വേണ്ടിയത് ആ എവിടെ കൊണ്ടുവരണം അതുകൊണ്ട് ആ അത് എവിടെയാണ് ആ അപ്പോൾ ഇത്രയും ആയിട്ട് വന്നാൽ മതിയോ ഇല്ല ഞാൻ തന്നെ നേരിട്ട് വരണമെന്നുണ്ടോ അത് ശരി ആ ആ ഫോട്ടോ വല്ലതും എടുക്കണോ

പിന്നെ സ പൈസ പൈസയയൊക്കെ എങ്ങനെയാണ് എത്ര നാൽപ്പത് ആ എത്ര സമയം കഴിഞ്ഞിട്ട് വരണം എ തിരക്ക് തിരക്കൊന്നും എത്ര അല്ല സമയം എപ്പോൾ എത്ര മണിക്ക് വന്നാലാണ് ആ ആ ശരി ആ ശരി ശെരി ആ ആ ആ ശരി എന്നാൽ ഒ വീട് ഇവിടെ അടുത്ത് തന്നെ വലിയ ദൂരവില്ല ആ കുഴപ്പമില്ല ഞാൻ ഏട്ടരയ്ക്ക് തന്നെ വന്നോളാം ആ ശരി ശരി ഓക്കെ ഓക്കെ ആ മതി മതി ആ ശരി ആ